ഞാൻ എഴുതിയതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്ത് എന്ന് പറയുന്നത് കവിത ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഞാാനിപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ കവിത എൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയായിരുന്നു ഞാൻ എഴുതിയത് ഒരിക്കലും എൻ്റെ അമ്മ എന്നല്ല എൻ്റെറമ്മയെ കുുറിച്ച് എഴുതിയത് എല്ലാ മാതാപിതാക്കളും അല്ലെങ്കി എല്ലാ അമ്മമാരെയും പ്രനിീധീകരിച്ച കൊണ്ട് തന്നെയായിരുന്നു അത് എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മ തന്നെയാണ് ഞങ്ങളാ മൂന്ന് പെൺകുട്ടികളാണ് ഈ മൂന്ന് ഞങ്ങളെ മൂന്ന് പെൺ മക്കളും വളർത്താനായിട്ടും ഒരു നിലയിലെത്തിക്കുവാനായിട്ടും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പ അമ്മോണ് ഞാൻഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം കണ്ടറിഞ്ഞാണ് അങ്ങനെ അമ്മയെക്കുറിച്ച് ഒരു കവിത എഴുതാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതും എഴുയതും അപ്പോൾ ആദ്യം ആ കവിത എഴുതുമ്പോൾ മനസ്സില് ഒ ഐഡിയ ഇല്ലായിരുന്നു എങ്കിലും മനസ്സിലൊരുരാഗ്രഹം തോന്നി എനിക്ക് എന്തെങ്കിലും എനിക്കൊരു കലാപരമായിട്ടുള്ളരു കഴിവുണ്ട് എനിക്കൊരു കവിത എഴുതാൻ പറ്റും എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഏതാ ഒരാളാണെങ്കിലും ആദ്യം ഒരു അതായത് എൻ്റെ ആദ്യത്തെ എഴുത്തും കൂടിയാണത് ഞാൻ ആദ്യമായിട്ടൊരു സൃഷ്ടി എൻ്റെ ഒരു കലാപരമായിട്ടുള്ള സൃഷ്ടി ഞാൻ പുൊറത്തെറക്കുന്നത് അമ്മ എന്ന സബ്ജക്റ്റിൽ തന്നെയാണ് അപ്പം അതിലൂടെ എൻ്റെ അമ്മയുടെ കഷ്ടപ്പെടനെക്കുറിച്ചും അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അമ്മ ഞങ്ങളെ വളർത്തി വലിയ വലുതാക്കിയതിനെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് വായിച്ച ഒരുപാട് പേർ എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ആണെങ്കിലും ഒരുപാട്ന്നെ അവ അനന്ന്ദിച്ചു ഇതിനേം കഴിവ നിനെക്കൊണ്ടോ അത് വായിച്ചപ്പോൾ ഒരുപാട് സങ്കടം വന്നു ഒരു അമ്മേയുടെ ജീവിതം മുഴുവൻ നീതില എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേർ എനിക്ക് പ്രോത്സാഹനം തന്നു അന് ശേഷം ഒരുപാട് എഴുത്തുകളളെല്ലാം ഞാൻ എഴുതി കഥകള എഴതിയിട്ടുണ്ട് കവിതകൾഴതിയിട്ടുണ്ട് എങ്കിലും അന്നും ഇന്നും മറക്കാതെ മറ്റുള്ളവരും മനസ്സിലാക്കിയിരിക്കുന്നതും അല്ല എൻ്റെ പേര് പറയുമ്പോൾ തന്നെ മറ്റുള്ളവര് ഓർക്കുന്നതും എൻ്റെ കൂട്ടുകാര ഓർക്കുന്നതും ഞാൻ ഓർക്കുന്നതും എൻ്റെ ഞാൻാദ്യമായി എഴുതിയ ആ കവിതയാണ് ഒരിക്കലും അത് മനസ്സിൽ നിന്നും ആലമ്മ എന്ന രണ്ടാക്ഷരം എന്ത അത്ഭുതമാണ് ഇന്ന് ഞാനും ഒരമ്മയാണ് അപ്പോളാണ് ഞാനത് മനസ്സിലാക്കുന്നത് ആ വാക്കിൻ്റെ പ്രസക്തി എന്താണ് അതിൻ്റെ അത്ഭുതം എന്താണ് നമ്മൾ ഓരോ അമ്മമാരും തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ആ ജീവിതം മുൂഴൻ ഒഴിഞ്ി വെച്ചിരിക്കുന്നത് അവർ കഷ്ടപ്പെടുന്നതും എല്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ആശയം ഉൾകൊണ്ട കൊണ്ടാണ് ആ കവിത രഹച്ചത് അതില രോ വരികളും ഓരോ വാക്കുകളും ഏറ്റവും മനോഹരമാക്കാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ അത് ഓരോ അമ്മമാർക്കും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾത് ഏറ്റവും മനോഹരമാക്കി എഴുതാനായിട്ട് ഞാൻ ഏറെ ശ്രദ്ധിച്ചു അത് ഒരു എപത് ശതമാനം അല്ലേ തൊണ്ണൂറ് ശതമാനത്തോളം എനിക്കതിനെ സാധിച്ചു എൻ്റെ അധ്യാപകരമ എന്നെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്തു നതല്ലൊരു കവിതയാണ് നീത്രേ നന്നായി എഴുതിയല്ലോ എന്നൊക്കെ അപ്പ ഞാനിതെല്ലാം എഴുതിയത് നമ്മുടെ മലയാള ഭാഷ കാരണം ഏറ്റവും നന്നായിട്ട് എനിക്ക് പറയാനും ചെയ്യാനും എഴുതാനും സംസാരിക്കാനും കഴിയുന്നത് മലയാള ഭാഷയാണ് അതുകൊണ്ട് തന്നെ ഞൻ ആ ഭാഷയിലാണ് ഇത് എഴുതിയത്